തോട്ടത്തിൽ നടാനുള്ള ചെടികൾ കൂടുതലും പരിസര പ്രദേശങ്ങളിൽ നിന്നു തന്നെയാണ് ലഭിക്കാറുള്ളത് എവിടെ എങ്കിലും പോകുകയാണെങ്കിൽ അവിടെ കണ്ട് ഇഷ്ടപ്പെടുന്ന ചെടികൾ പൂവിൻ്റെ വിത്തുകളോ അല്ലെങ്കിൽ നടാനുള്ള കമ്പുകളോ തയ്യാക്കി ചോദിച്ച് വാങ്ങി തോട്ടത്തിൽ നട്ട് പിടിപ്പിക്കും അവയെ പരിപാലിക്കുക എന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് അത് കൊണ്ട് തന്നെ പല തരത്തിലുള്ള പൂക്കൾ വിരിയുന്ന ചെടികൾ ഞാൻ നഴ്സറിയിൽ നിന്നും വാങ് വാങ്ങാറുണ്ട് ഈ നഴ്സറി അതാകുമ്പോൾ പല വെറയ്റ്റിയും ലഭ്യമാണ് എൻ്റെ തോട്ടത്തിലെ ചെടികൾ കണ്ട് മറ്റുള്ളവർ അതിനെ എങ്ങനെ പരിപാലിക്കുന്നു എന്ന് ചോദിക്കാറും ചിലതിൻ്റെ വിത്തുകളും തൈകളും ഒക്കെ വാങ്ങാറുമുണ്ട് നഴ്സറിയിൽ നിന്ന് കിട്ടുമ്പോൾ അതിൻ്റെ പരിപലനത്തെ കുറിച്ച് അവർ വ്യക്തമായി പറഞ്ഞു തരാറുണ്ട് അത്തരത്തിൽ തന്നെ അവയ്ക് വെള്ളവും വളവും എല്ലാം നൽകി നല്ല രീതിയിൽ പരിപാലിച്ചാൽ അവയെല്ലാം കുറെ നാള് നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നതാണ് ബഡ് ചെയ്ത തൈകളും മറ്റും നഴ്സറിയിൽ നിന്ന് ലഭിക്കുന്നത് വളരെ മികച്ച ഗുണ മേന്മ ഉള്ളവയായിരിക്കും ആ അത് കൊണ്ട് തന്നെ ഫലങ്ങൾ വളരെ നേരത്തെ തന്നെ ലഭിച്ച് തുടങ്ങയും ചെയ്യും